ഞാന് ഓൺലൈനിൽ നിന്ന് വാങ്ങിച്ചൊരു പ്രോഡക്റ്റായിരുന്നു പെർഫ്യുമായിരുന്നു ഞാന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് നല്ല പ്രോഡക്ട്ട് തന്നെയായിരുന്നു ഞാനൊരു പെർഫ്യൂമ് ഫ്ലേവറുന്നു പറയുമ്പോൾ ജാസ്മിൻ്റെ ഉള്ളൊരു ഫ്ലേവറുള്ള പെർഫ്യൂമാണ് വാങ്ങിച്ചത് അത്യാവശ്യം എനിക്ക് നല്ല ഫ്ലേവർ ഞാൻ ഉദ്ദേശിച്ച പോലെത്തന്നെ നല്ല രീതിലുള്ളായിരുന്നു നല്ല എന്താ പറയുക അതിൻ്റെ ആ ഒരു സുഗന്ധം കുറച്ചും കൂടെ റീടൈൻ ചെയ്ത് നിക്കിണ്ട് അപ്പൊ നമുക്ക് എന്തെങ്കിലും ഫങ്ഷൻസിനൊക്കെ പോകണമെങ്കിൽ അത്യാവശ്യം കുറെ നേരം സമയങ്ങളില് അത് നന്നായിട്ട് റീടൈൻ ചെയ്യും അപ്പോൾ നല്ല സുഗന്ധമാണ് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു ആ ഒരു ആ ഒരു റേറ്റിന് ഒരുപാട് വർത്തായിട്ടുള്ള പ്രോഡക്ട്ട് തന്നെയാണ് നല്ല നമുക്കെന്താ പറയുക അങ്ങനെ ഓവറിപ്പോൾ അൺകംഫേർറ്റായിട്ടുള്ള ഓവർ നല്ല ഒരു സ്മെൽ അങ്ങയൊന്നുല്ല ഇട്സ് മീഡിയം അപ്പോൾ എല്ലാവരും വാങ്ങണം എന്ന് തന്നെ ആണ് ഞാൻ അഭിപ്രായപ്പെടുന്നത്